ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് സംസ്കൃതമായിരുന്നു ഏറ്റവും ഇഷ്ട്ടപ്പെട്ട വിഷയം കാരണം എന്താണെന്ന് വച്ചിട്ടുണ്ടെങ്കിൽ അഞ്ചാം ക്ലാസ് മുതൽ മലയാളം അല്ലെങ്കിൽ സംസ്കൃതം എന്ന രീതിയിലൊരോപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു ഇതിലേത് വേണമെങ്കിലും നമുക്ക് തിരെഞ്ഞെടുക്കമായിരുന്നു അപ്പോൾ ഞാൻ തിരെഞ്ഞെടുത്തത് സംസ്കൃതമാണ് കാരണം സംസ്കൃതത്തിൻ്റെ അവസാന ഭാഗത്ത് സംസ്കൃതം എക്സാം എഴുതുമ്പോൾ അതിൻ്റെ അവസാന ഭാഗത്ത് ഒരു എസ്സേ റൈറ്റിങ് ഉണ്ടായിരുന്നു അതിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ വരുന്ന പറ്റുന്നത് എന്താണെ ന്ന് വച്ചിട്ടുണ്ടെങ്കിൽ പാഠപുസ്തകത്തിൽ നിന്നുള്ള എസ്സേ റൈറ്റിങ് ആയിരുന്നു അത് പക്ഷേ മലയാളത്തിൽ അങ്ങനെ ആയിരുന്നില്ല അത് ജനറലായിട്ടുള്ള ക്വസ്റ്റിൻസ് ക്വസ്റ്റിനായിരുന്നു അപ്പോൾ നമ്മൾ അതിൻ്റെ പോയ്ന്റ്സ്കള് നമുക്ക് കണ്ടെത്താൻ വളരെയധികം പ്രയാസമായിരുന്നു അതുകൊണ്ട് എനിക്ക് സംസ്കൃതമായിരുന്നു വളരെയധികം ഇഷ്ട്ടം